കർഷകർ അവർ ജീവിക്കുന്നതു തന്നെ അവർ കൃഷി എല്ലാം നോക്കി നടത്തിയാണ് അവർക്കിപ്പം കൃഷി നോക്കി നടത്തി അതു പരിപാലിച്ച് കേടൊന്നും ഇല്ലാണ്ട് നല്ല ജൈവ വളം ഒക്കെ ഉപയോഗിച്ചവർ കൃഷി നടത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കൃഷിക്ക് കൃഷി ചെയ്ത ഉത്പന്നങ്ങൾക്കു വില ഇല്ലാണ്ടായി പോകുകയാണ് അതുപോലെ തന്നെ അപ്പം അവർക്ക് വേറൊരു നിവർത്തി ഇല്ല വേറൊരു ജോലിക്കു പോകാനോ അങ്ങനെയുള്ള ഇതിനൊന്നും അവർക്കു സാധിക്കയില്ല അവർക്ക് കൃഷി മാത്രം ആണ് അവരുടെ അവർ ജീവിക്കുന്ന തന്നെ കൃഷിയിലാണ് എല്ലാം ചെയ്തു അതിൻ്റെ വരുമാനം കൊണ്ടാണ് അവർ അവർ കുടുംബം നടത്തുന്നതും അവർ ജീവിക്കുന്നതും ഒക്കെ അപ്പോൾ വില ഇല്ലാണ്ട് വരുമ്പോൾ തന്നെ ഇവർക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല ഇവർ നേരെ ആത്മഹത്യ ശ്രമിക്കൂള്ളൂ അതുപോലെ തന്നെ സർക്കാർ കർഷക ആത്മഹത്യകൾ തടയാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാറുകൾക്ക് സ്വന്തം സംരംഭങ്ങൾ തന്നെ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ സർക്കാർ കടങ്ങളെല്ലാം എഴുതി തള്ളാനും കടാശ്വാസ പദ്ധതി നടപ്പാക്കാനും ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ഈ ലോൺ എടുത്തു കൃഷി നടത്തുന്നവർക്ക് സർക്കാർ ലോൺ തിരിച്ചടക്കണ്ട അതു എഴുതി തള്ളി അങ്ങനെ കർഷകരെ സഹായിക്കുന്നും ഉണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി പുതിയ പദ്ധതികൾ കർഷകരുടെ ഭാഗ കർഷകർക്കു വേണ്ടി സർക്കാരുകൾ ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബത്തിന് അവർ കുടുംബക്കാരെ ആത്മഹത്യ ചെയ്ത പിള്ളേരെ സർക്കാരേറ്റെടുത്തു വളർത്തി അവർക്കു ജോലി കൊടുക്കുന്നു അവരെ മക്കളുടെ പഠിത്തവും എല്ലാ കാര്യങ്ങളും നോക്കുന്നു അതുപോലെതന്നെ കുറേ പുതിയ സംരംഭങ്ങൾക്ക് ആത്മഹത്യയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കുറേ സംരംഭങ്ങൾക്കു സർക്കാർ തന്നെ പൈസ കൊടുക്കുന്നുമുണ്ട് കുറേ പേക്കേജുകൾ കുറേ പാക്കേജുകൾ കൊടുക്കുന്നുണ്ട് കർഷകർക്ക് ക കടം നൽകി സർക്കാർ അവരെ ആശ്വസിപ്പിക്കും പിന്നെ അവർക്കു വേണ്ടി സ വായ്പ വിതരണം പിന്നെ ജലസേചന സൗകര്യങ്ങൾ നേട്ടപ്പെടുത്തി മെച്ചപ്പെടുത്തി കാർഷിക സഹായ സേവനങ്ങൾ നൽകുന്നതിന് പിന്നെ സബ്സിഡി ഈ നമ്മൾ വാങ്ങുന്ന വളം ഈ കർഷകർക്ക് ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ നമ്മൾ സർക്കാർ സബ്സിഡി ആയിട്ട് കൊടുത്ത് അവരെ സഹായിക്കുന്നു അപ്പോൾ അത് ഇപ്പോൾ പകുതി പൈസ കൊടുത്താൽ മതി പകുതി പൈസക്കു വളങ്ങളും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നു അങ്ങനെ കുറെ സഹായങ്ങൾ സർക്കാർ ചെയ്യുന്നു അങ്ങനെ നമുക്ക് ആത്മഹത്യയിൽ നിന്ന് ഒഴിവാകാൻ പറ്റും പിന്നെ ഈ കർഷകർ സമ്പാദിക്കുന്ന സംരംഭിക്കുന്ന ആ എല്ലാ കാര്യങ്ങളും ഒരു വിജയിക്കണമെന്നില്ല പക്ഷെ സർക്കാരിന് അതിനെ മുൻകൂട്ടി കണ്ടെത്തി അവർക്കു വേണ്ട പേയ്ക്കേജുകൾ എല്ലാം കൊടുത്ത് ഉയർന്ന വില കിട്ടുന്ന രീതിയിലേക്ക് അതു മാറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കുറേ ആത്മഹത്യകൾ കുറഞ്ഞു വരുന്നും ഉണ്ട്